കേരള രാഷ്ട്രീയത്തിൽ മാറ്റിവയ്ക്കാൻ ആവാത്ത ഒരു വളരെ പ്രമുഖ പൊളിറ്റീഷ്യൻ നേതാവായിരുന്നു സീ വീ പന്മരാജൻ സി വി പന്മരാജൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ജൂലൈ ഇരുപത്തിരണ്ടിലാണ് ആളുടെ ജനനം ആൾ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു ആളുടെ വീട് പറവൂർ പൊന്നക്കേൽ ആയിരുന്നു ആൾ നമ്മുടെ കേരളത്തിലെ ഒട്ടധികം സ്ഥാനങ്ങളിലെ മിനിസ്റ്റർ ആയിട്ടുണ്ട് ആൾ പിന്നെ എലക്ട്രിക്ക് സിറ്റി കം കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് ആൻഡ് ഫിഷറി എന്നിവ തലങ്ങളിൽ മിനിസ്റ്റർ ആയിട്ടുണ്ട് ആൾ കേരള പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റിയിൽ ഒരു അംഗമായിരുന്നു ആൾ അതിൽ പ്രസിഡൻ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെയുള്ള കാലയളവിൽ കേരള പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റിയിലെ ഒരു പ്രസിഡൻ്റായിരുന്നു ആൾ അതേ പോലെ തന്നെ ആൾ